ഹലോ സ്പാഗോ റെസ്റ്റോറൻറ് അല്ലേ എനിക്ക് ടേബിൾ റിസർവ് ചെയ്ത് വയ്ക്കാനായിരുന്നു ഞങ്ങളൊരു എട്ട് ഒമ്പത് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ടേബിൾ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് പാർക്കിംഗ് സൗകര്യം ഉണ്ടോ ഞങ്ങൾ ഒരു ഏഴ് എട്ട് വണ്ടികൾ ഉണ്ടാവും അങ്ങനെയായിരിക്കും വരുന്നത് അപ്പം പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ടാവുമോ എങ്ങനെയായിരിക്കും ഞങ്ങളൊരു ഒമ്പത് മണി ഒരു രാത്രി ഒമ്പത് മണിക്കും ഉള്ളിലാണ് എത്തുന്നത് അപ്പോൾ ആ സമയത്ത് ആ കടയിലെ തിരക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അതേപോലെ ഞങ്ങൾ ഇപ്പം പറയുന്ന ഫുഡ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതായത് ബിരിയാണി അതേപോലെ നോർമൽ റൈസ് പിന്നെ ഗീ റൈസ് പിന്നെ മസാലദോശ പിന്നെ ജസ്റ്റ് നൂഡിൽസ് ഇതാണ് ഇത്രയാണ് പറയുന്നത് ഡ്രിങ്ക്സായിട്ട് ജസ്റ്റ് ജ്യൂസ് ഐറ്റംസും പിന്നെ ഫലൂഡ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എത്ര മണിക്കായിരിക്കും ഷോപ്പ് ക്ലോസ് ചെയ്യുക ആ ഒരു ടൈം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അതേപോലെ ജസ്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് പവിത്ര പവിത്ര വിജയകുമാർ അതേപോലെ ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് വേണ്ടത് രണ്ടു പേര് അടങ്ങുന്ന ടേബിളായിരിക്കും അതൊരു രണ്ടു പേര് അടങ്ങുന്ന ഒരു അതേപോലെ ഒരു അഞ്ച് ആറ് ടേബിളാണ് ഞങ്ങൾക്കിപ്പം നിലവിൽ വേണ്ടത്